എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പത്രം എന്ന് പറയുന്നത് മാതൃഭൂമി പത്രമാണ് മാതൃഭൂമിയെന്ന് പത്രം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് ഉണ്ടാക്കിയ ഒരു പത്രമാണ് അതിൽ പ്രത്യേകിച്ചൊരു പാർട്ടിയെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള പത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റ് പത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ വേറെയേതെങ്കിലും ഒരു മാഗസീനോ കാര്യങ്ങളോ ആവട്ടെ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പത്രം മാത്രമാണ് പക്ഷെ മാതൃഭൂമി ആണെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യത്തെക്കാളും അവർ ജനങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ജനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് നൽകേണ്ടത് ഈ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അറിവുകളും ഒരു ചെറിയ ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിലൂടെ ഒരു പത്രത്തിലൂടെ അവർ നൽകുകയാണ് മാതൃഭൂമി പത്രത്തിലൂടെ അവരുടെ ആദ്യം തന്നെ ഒര് ഫസ്റ്റുള്ള ഒരു പേജ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ പത്രത്തിൽ ഇല്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം മറ്റുള്ള പത്രങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് ചിത്രങ്ങളും ഒക്കെ നിറച്ച് നിറച്ചതായിരിക്കും ഒരു ഇലക്ഷനോ മറ്റോ വന്ന് കഴിഞ്ഞാൽ മറ്റ് പത്രങ്ങൾ ഒരു പാർട്ടീനെ മാത്രം കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളും അവർക്ക് വേണ്ട പിന്തുണകളും നൽകുന്ന നൽകിയിട്ടാണ് അവരുടെ പത്രം പ്രസിദ്ധീകരിക്കാറുള്ളത് പക്ഷെ മാതൃഭൂമിയാകട്ടെ എല്ലാ വശങ്ങളും ചിന്തിച്ച് അവർ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്കുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെല്ലാം നൽകാൻ പറ്റും അവരുടെ പത്രത്തിലൂടെ അതൊക്കെ മാതൃഭൂമി പത്രം നൽകാറുണ്ട് അത് കൂടാതെ തന്നെ ഏതൊരു താള് എടുത്ത് കഴിഞ്ഞാൽ പത്രത്തിൻ്റെ ഏതൊരു താള് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ ഓരോരോ ക്രമീകരണം നടത്തിയിട്ടുണ്ട് ഇന്ന താളുകളിൽ ഇന്നത് കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്രമം ആ ഒരു മാതൃഭൂമി പത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി എഡിറ്റോറിയൽ പേജെടുക്കുകയാണെങ്കിൽ ജനങ്ങൾ അന്ന് ഡിസ്കസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അന്ന് വിവരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ഈ ഒരെഡിറ്റോറിയൽ പേജിൽ നൽകിയിട്ടുണ്ടാവുക അത് കൂടാതെ തന്നെ അവരുടെ പത്രത്തിൻ്റെ ഒരഭിപ്രായം ഈ എഡിറ്റോറിയൽ ഭാഗത്ത് അവർ നൽകിയിട്ടുണ്ടാവും അത് വായിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സ് വായിച്ചതിൻ്റെ ഒരു പ്രതീതിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അത് അത് മാത്രമല്ല സ്പോർട്സ് പേജെടുത്ത് കായിക പേജെടുത്ത് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ചെറിയ ചെറിയ വാർത്തകളും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വലിയ വലിയ വാർത്തകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തും ചെറിയ വാർത്തകൾക്ക് ഒട്ടും പ്രാധാന്യം കുറക്കാതെയും തന്നെയാണ് ഈ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് ഒരു മേൽപ്പൊടി അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരു പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല അതു കൂടാതെ ഞായറാഴ്ച ഉള്ള വാരാന്ത്യപ്പതിപ്പ് ആ ഒര് നമുക്ക് എന്തോ ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യമായിട്ട് നമുക്കോരോരോ കാര്യങ്ങൾ ആ ഒരു വാരാന്ത്യപ്പതിപ്പിൽ നൽകിയിട്ടുണ്ടാവും പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യ എന്നു പറയുന്ന ഒരു കാര്യങ്ങളും കൂടിയും മാതൃഭൂമി പത്രം നമുക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട് ഇത്രയും ഒക്കെയാണ് ഈ മാതൃഭൂമി പത്രം അല്ലെങ്കിൽ ഈ ഒരു മാധ്യമം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉപയോഗം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പത്രം എന്ന് പറയുന്നത് മാതൃഭൂമി പത്രം തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ലാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും